മാംസ വിഭവങ്ങൾക്കും മറ്റും കൂടുതൽ രുചി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സാധാരണ ചേർക്കുന്നത് കുരുമുളകാണ് കുരുമുളക് മല്ലിയില അതുപോലെ തന്നെ പുതിനയില കറുവപട്ട ഇതൊക്കെ ചേർക്കുമ്പോൾ മാംസ വിഭവങ്ങൾക്ക് വേറെ തന്നെ ഒരു രുചി കിട്ടും അതു മാത്രമല്ല ഒരു പ്രത്യേക തരം ഗന്ധം ഇവ ചേർക്കുന്നതിലൂടെ നമുക്ക് ഭക്ഷണത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അല്ലാതെ മറ്റ് രഹസ്യ ചേരുവകളൊന്നും സാധാരണയായി ചേർക്കാറില്ല ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ നല്ല രീതിയിലുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാറുള്ളത് മാത്രമല്ല ഭക്ഷണം വിറകടുപ്പിൽ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ രുചി കിട്ടുന്നതയായിട്ട് തോന്നാറുണ്ട് അല്ലെങ്കിൽ കൂടുതൽ നന്നാവുന്നതായി ന്നതായിട്ട് തോന്നാറുണ്ട്